എൻ്റെ തോട്ടത്തിൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന പ്രധാന ചെടികളാണ് ഡാലിയ ആന്തൂറിയം ഊട്ടി റോസ് എന്നിവ കടുത്ത വേനലിൽ ഈ ചെടികളെയെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നത് രണ്ടുനേരം നനച്ചുകൊടുത്തും തന്നെയാണ് കടുത്ത മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പുകാലത്ത് നമ്മൾ ചെടികളെ സംരക്ഷിക്കുന്നത് വെള്ളം അധികം കെട്ടിനിർത്താതെ ചാലുകൾ ഉണ്ടാക്കി വെള്ളം തുറന്നുവിട്ടും പൊതിയിട്ടുമാണ് സംരക്ഷിക്കുന്നത്